മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചൂണ്ടയായിരുന്നു അത് ചൂണ്ടയിൽ തീറ്റി കോർത്ത് ഒരു ചെറിയ ആ പ്ലാസ്റ്റിക്ക് ചരടിലാണ് ചൂണ്ട കെട്ടുന്നത് അതിൽ പൊങ്ങെന്ന് പറയും പൊങ്ങി കിടക്കും അത് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കും അപ്പം മീൻ താഴോട്ട് വലിക്കുമ്പോൾ പൊങ്ങ് താഴുവേം അനങ്ങുവേം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും മീൻ കുത്തി എന്ന് അങ്ങനെ ട്രിക്ക് ഉണ്ട് കുത്തിയാൽ ഉടനെ വലിക്കില്ല പല മീൻ കുറച്ച് നേരം കൊണ്ട് പോയി കഴിഞ്ഞേ അത് വായിൽ വെച്ചുകൊണ്ട് കുറച്ചുനേരം പോവും അത് കഴിഞ്ഞേ അത് വിഴുങ്ങുള്ളൂ അപ്പം അതിന് പയ്യെ അയച്ചുകൊടുക്കും ചൂണ്ട അയച്ച് കൊടുക്കും അങ്ങനെ നമ്മൾ മീൻ പിടിക്കുമായിരുന്നു ആ അങ്ങനെയാണ് ചൂണ്ട ഇട്ട് പിന്നെ നമ്മൾ വല വീശി പിടിക്കും അത് അതിനൊക്കെ ഇപ്പം മാറ്റം വന്നു ഇപ്പം വലകൾ നമ്മൾ വലകൾ കെട്ടി വളരെ വല വളരെ നീളത്തിൽ വലകൾ കെട്ടി നമ്മൾ അതിനെ ഉടക്കുവല എന്ന് പറയും കെട്ടി വൈകിട്ട് ഇട്ട് കഴിഞ്ഞാൽ നാലഞ്ച് മണിക്കൂറോ ചിലപ്പം രാവിലെയൊക്കെ എത്തി നോക്കുമ്പം അതിൽ മീൻ ഉടക്കും അതൊരു പുതിയ വിദ്യയാണ് ഉടക്ക് മീൻ ഉടക്കുവല ആ വിദ്യ കൊണ്ട് നമ്മൾ മീൻ പിടിക്കുമായിരുന്നു അങ്ങനെയാണിപ്പം കൂടുതലും മീൻ പിടിക്കുന്നത് ഉടക്കുവലയാണ് കുട്ടനാട്ടിൽ വീശുന്നത് അത്ര സ്ട്രെയിൻ ഒന്നുമില്ല വൈകിട്ട് വള്ളത്തിൽ കയറും ഉടക്കുവലകൾ നാലും അഞ്ചും ഉടക്കുവലകൾ കാണും അത് ഒരു ഒരു ഒരു കമ്പിൽ കുത്തി ഒരറ്റം കെട്ടിവച്ച് വലിച്ചു വെള്ളത്തിലോട്ട് ഇടും അതിനെ അതിൻ്റെ മുകളിലത്തെ ഭാഗം പൊങ്ങിക്കിടക്കാൻ അതിനകത്ത് പൊങ്ങുണ്ട് പൊങ്ങ് അപ്പം ആ പൊങ്ങ് കൊണ്ട് പൊങ്ങി കിടക്കും അങ്ങേ അറ്റം വരെ നമ്മള് വലിച്ച് വലിച്ച് വലിച്ച് ദൂരോട്ട് വിരിച്ച് താഴോട്ട് ഇടും അത് തിരിച്ചിടുമ്പോൾ ദീർഘാതുരത്തിൽ ദീർഘചതുരത്തിലാണതിൻ്റെ നീളത്തിൽ അങ്ങനെ കെട്ടിയിടും ചിലതിന് പത്ത് മുപ്പത് മീറ്റർ നീളവും ഒന്നും രണ്ടും മീറ്റർ വീതിയിലും ആണ് ഇതിങ്ങനെ കെട്ടിയിടുന്നത് അതും കെട്ടി ഇട്ടേച്ചുപോയി നമുക്ക് വിശ്രമിക്കാം ഒരു മൂന്നാലെണ്ണം സന്ധ്യയ്ക്ക് ഒരു ഒരു മണിക്കൂറിനകം കൊണ്ട് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് പോയി വീട്ടിൽ പോയി കിടന്നുറങ്ങി ഇനി വെളുപ്പ് ആവുമ്പോഴത്തേക്ക് ഒരു നാല് മണി ഒക്കെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് ഓരോ വലയും പൊക്കി നമുക്ക് മീനെടുക്കാം പിൻ അങ്ങനെ വല വീശിന് പകരം ഇപ്പം ഉടക്കുവല പിന്നെ ഇപ്പം ഇപ്പം മീൻ പിടിക്കുന്നത് ഏറ് ചൂണ്ടകളുണ്ട് പ്ലാസ്റ്റിക്ക് കെട്ടി നമ്മൾ വലിക്കുന്ന വിദേശത്തൊക്കെ ആളുകൾ മീൻ പിടിക്കുന്ന ആ ഒരു മാർഗ്ഗം നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന് അതിന് തീറ്റയല്ല അതിന് മീനിനെ കളിപ്പിക്കാനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ മീനിൻ്റെ ഷേപ്പിലുള്ള ചെറിയ കൊച്ചു മീനിനെപ്പോലെ തോന്നിക്കുന്ന സാധനം നമ്മൾ വലിക്കും അപ്പോൾ വാള വാളയാണ് പൊതുവേ കിട്ടുന്നത് വാളയും വലിയ മീനൊക്കെ കിട്ടും അപ്പോൾ അത് വന്ന് ഇതിങ്ങനെ തിരിച്ചു പുറകോട്ട് വലിക്കുമ്പം വിദേശത്തൊക്കെ കണ്ടിരിക്കുന്ന സൈസ് ചൂണ്ട അതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന പുതിയ ടെക്നിക്ക്